ഇപ്പോൾ നമ്മുടെ നാട്ടില് കരകൗശല വസ്തുക്കൾ എന്ന് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാല് പല തരം കരകൗശല വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അത് ഒരു എന്താ പറയുക അതായത് ഒരു ആർട്ട് വർക്ക് മാത്രമായിട്ട് അല്ല അവര് കണ്ട് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് അത് ഒരു പ്രൊഫഷണലും അവർക്ക് ക്യാഷിന് വേണ്ടി ഉള്ള അതായത് ഒരു തൊഴിലും അതും കുടി വേണ്ടിയിട്ട് ആണ് അവര് അത് കൂടുതലായിട്ടും ഉണ്ടാക്കി വരുന്നത് അപ്പോൾ അതിന് അനുസരിച്ച് അവര് ഇപ്പോൾ ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യും അത് രണ്ടോ ഇപ്പോൾ അതില് ചിലപ്പോൾ അതില് കൂടുതല് വിറ്റ് അഴിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു തൊഴിലായിട്ട് ആണ് അവര് കൂടുതലായിട്ടും കാണുന്നത് പിന്നെ പെയിൻറിംഗ് ശിൽപ്പം ശിൽപ്പം എന്ന് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാല് പല അതായത് കൊത്തു പണികളൊക്കെ ചെയ്തു നല്ല രീതിയിലുള്ള ശിൽപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഓരോരുത്തര് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം കാപ്പിൻ്റെ വേര് വെച്ചിട്ട് കിളികള് അതിന് അകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലെ ശിൽപങ്ങളും കാര്യങ്ങളൊക്കെ കൊത്തി വയ്ക്കുന്ന ആൾക്കാര് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ തുണിത്തരങ്ങള് അങ്ങനെ കുറെ തുണിയിൽ ഇങ്ങനെ നെയ്ത് നല്ല അടിപൊളി ആക്കിയിട്ടുള്ള ചിത്രങ്ങള് കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നവര് ഉണ്ട് പിന്നെ മൺ പത്രങ്ങൾ അങ്ങനെ പലരീതിയില് ചെയ്യുന്നവരൊക്കെ ഉണ്ട്